ഇന്ത്യയിലെ രാഷ്ട്രീയം പറയുന്ന നല്ല രീതിക്ക് തന്നെയാണ് പോകുന്നത് ബി ജെ പി കോണ്ഗ്രസ് നമ്മുടെ സ്റ്റേറ്റ് ലെവലില് വരുമ്പോള് മാര്ക്സിസ്റ്റ് പാര്ട്ടി എല്ലാം തന്നെ നല്ലത് തന്നെ അവർ നമുക്ക് പെന്ഷന് സ്കീം ആയാലും നല്ല രീതിക്കുള്ള പെന്ഷന് സ്കീമൊക്കെയാണ് നമുക്ക് തരുന്നത് എല്ലാവര്ക്കും പെന്ഷന് എത്തിക്കുകയും എന്താണ് നല്ല വിശേഷ ദിവസങ്ങള് വരുമ്പോൾ പെന്ഷന് ചെയ്യുകയും പെന്ഷന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു പിന്നേ ബി ജെ പി ഏതു ഇതുമേ ചെയ്യുകയാണെങ്കിൽ നരേന്ദ്രമോദി അവരൊക്കെ ആണെങ്കിൽ നരേന്ദ്രമോദി സാറാണെങ്കിൽ മറ്റേ ഈ നോട്ടു നിരോധനം ചെയ്തത് നല്ലതാണ് കള്ള ഈ കള്ളനോട്ടിന്റെ ഇതും എല്ലാവരും കൂടുതല് പൈസ ഇതാക്കി വെച്ചതൊക്കെ വെളിയിൽ കൊണ്ടുവരാന് പറ്റി അതൊരു കാര്യം ചെയ്തത് നല്ലതാണ് അപ്പോൾ രാഷ്ട്രീയം എന്നാൽ രാഷ്ടീയ പാര്ട്ടികള് നല്ലതും ചെയ്യുന്നുണ്ട് ചീത്തത് എന്ന് പറഞ്ഞാല് അവർ ആ ടൈമും അത് തന്നെ എലക്ഷന് ടൈം മാത്രം നമ്മളെ നോക്കിയിട്ട് വേറൊള്ള ടൈം നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് പോണതും അങ്ങനെ ചിലതും നമുക്കാണ് വ്യക്തിപരമായി പറഞ്ഞാല് പിന്നെ ഇഷ്ടമുള്ള നേതാവ് പറഞ്ഞാല് നരേന്ദ്രമോദി സാറിനെ ഭയങ്കര ഇഷ്ടമാണ് ആ സാറിനെ നല്ല കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉള്ളതാണ് പിന്നെ അവർ വന്നാൽ ഞങ്ങളുടെ പ്രദേശത്തെ വേനല്ക്കാലം ആയാൽ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിനു ക്ഷാമമാണ് അതിനു ഞങ്ങള്ക്ക് പൈപ്പ് കണക്ഷനൊക്കെ തരുമോയെന്ന് ഞങ്ങള്ക്കൊന്ന് അപേക്ഷിക്കണം എന്നുണ്ട്